മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഒന്ന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന്